ആ ചേച്ചി വരൂ അതെ എന്തൊക്കെയാണ് വേണ്ടത് ആയിക്കോട്ടേ ആ ആ ഓക്കെ നമുക്ക് ഡൈനിങ്ങ് ടേബിൾ എത്ര വലിപ്പം ഉള്ളതാണ് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ എത്ര ആളുകളുണ്ടാവും ആ നിങ്ങളുടെ ആ അത്രയും വലിപ്പം ഇപ്പോൾ അതായത് വലിപ്പം നോക്കുമ്പോൾ നമ്മളെ ഡൈനിങ്ങ് ഹോൾ എത്ര വലിപ്പം ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് ആണ് നമ്മൾ ഡൈനിങ്ങ് ടേബിൾ മേടിക്കുക കാരണം അതിൽ ഇടാൻ പറ്റുന്ന സാധനം അല്ലേ പിന്നെ ഉള്ളിലേക്ക് കയറ്റാനുള്ള കയറ്റാനുള്ള ബുദ്ധിമുട്ട് ഒന്നും വരില്ല നമ്മൾക്ക് ഇത് ഫുൾ ആയിട്ട് ഡിസ്മാൻ്റിൽ ചെയ്ത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് നമ്മക്ക് വരുന്നത് ഇപ്പോൾ ആ ആ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എട്ട് ആൾക്ക് എടുക്കാൻ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നാലടിക്കുള്ള ഒരു ടേബിൾ ഉണ്ട് അതിൽ വന്നിട്ട് എട്ട് ചെയർ വരും ആ സെറ്റിന് വന്നിട്ട് ഇപ്പോൾ പതിനെട്ടായിരം ആണ് സ്റ്റാർട്ടിങ്ങ് അതു നല്ല തേക്കിൻ്റെ ആണ് ഫുൾ ഫിനിഷിങ്ങ് ഫിനിഷിങ്ങ് ഉള്ള വർക്ക് ആണ് തേക്കിൻ്റെ ഗ്ലേസിങ്ങ് ഇട്ടിട്ടുണ്ട് മുകളിൽ ചെറിയ ഒരു ഗ്ലാസ്സിൻ്റെ മെറ്റീരിയൽ കൂടെ വരും ആ

അലമാര അത് മരത്തിന് അനുസരിച്ചാണ് തേക്കിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ ഈ ഈട്ടി ഉണ്ട് പിന്നെ സാധാ നമ്മടെ സാധാ മരങ്ങൾ കൊണ്ട് ഉണ്ട് അതിപ്പോൾ ഏതാണ് അതിനനുസരിച്ച് പിന്നെ അതിൻ്റെ റാക്ക് അതിൻ്റെ മുകളിലുള്ള കൊത്തുപണി അങ്ങനത്തെ അതിനാണ് പൈസ വരുന്നത് ആ അപ്പോൾ തേക്കിൻ്റെ നമുക്ക് പത്തായിരത്തിന് തുടങ്ങണത് ഉണ്ട് അതായത് ഈ ഒറ്റ മരത്തിനു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വില കൂടുതൽ ആയിരിക്കും ഒറ്റ മരത്തിനു ചെയ്യണ വർക്കിനു മറ്റെ വേറെ വേറെ രണ്ടു മൂന്നു മരം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വില കമ്മിയാകും സോഫ സെറ്റ് ആണ് വരണത് അതായത് ഒരു സോഫയും രണ്ടു ഇതും കൂടെ ചെയറും കൂടെ ഉൾപ്പെടണത് സെറ്റ് ആണ് അത് ആ അതിന് വന്നിട്ട് കുഷ്യൻ അതായത് കുഷ്യൻ്റെ മോഡൽ പോലെ ഇരിക്കും പിന്നെ ഇങ്ങനത്തെ മോഡൽ വേണോയെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതിൽ ചിലതിൽ വരണത് ഒരു ടീ വിത്ത് ടീപ്പോയും വരുന്നുണ്ട് അപ്പോ അതിന് വന്നിട്ട് പതിനാറായിരം ഉറുപ്പിക ആണ് വരണത് വിതൗട്ട് ടീപ്പോയ് ഇല്ലാണ്ട് വരുമ്പോൾ പതിനാല് ഉറുപ്പിക വരും ആ അങ്ങനെ ആണെന്ന് പറയുമ്പോൾ ഒരു പതിനാറായിരം രൂപയുടെ ഒരു സെറ്റ് വരുന്നുണ്ട് ആ ടേബിൾ എന്തിന് അത് ഈ തേയ്ക്കാൻ എന്താണ് അത് ഉദ്ദേശം എന്താണ് അത് അതെയോ ആ അങ്ങനത്തെ ആണല്ലെ ആ ഒക്കെ അപ്പോൾ ടേബിൾ മാത്രം മതിയോ ചെയർ വേണോ ആ ആ ആ ഓക്കെ ഓക്കെ ആ അത് കുഴപ്പമില്ല അതിന് അധികം റേറ്റ് ഒന്നും വരില്ല ഒരു പത്ത് അറുനൂറ് ഉറുപിക ഒക്കെ വരുള്ളൂ

ഡെലിവറി ചാർജ്ജ് ഇല്ല ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടാവും ഏകദേശം അത്രയല്ലേ ഉള്ളൂ അതിനൊന്നും നമ്മൾ പത്ത് കിലോമീറ്ററിനൊന്നും ഡെലിവറി ചാർജ്ജ് വരില്ല ഡിസ്കൗണ്ട് ഉണ്ടാവും നമുക്ക് എന്താണ് പറയുക ആ ഉണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് കുഴപ്പമൊന്നുമില്ല അതു നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരാം ആ ഓക്കെ വേറെ എന്തെങ്കിലും ഇപ്പോൾ മറ്റെ ഇപ്പോൾ നമ്മൾ രണ്ട് ഫർണിച്ചർ ഇപ്പോൾ എടുത്തിരിക്കണത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡൈനിങ്ങ് ടേബിൾ എടുത്തിട്ടുണ്ട് ഡൈനിങ്ങ് ടേബിളിൻ്റെ സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അലമാര എടുത്തിട്ടുണ്ട് അതുപോലെ ടീപ്പോയ് എടുത്തിട്ടുണ്ട് സോഫ സെറ്റ് എടുത്തിട്ടുണ്ട് ഇനി വാതിൽ അങ്ങനെ എന്തെങ്കിലും വേണോ അതൊക്കെ വർക്ക് വാതിലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞോ ആ വാതിൽ ഉണ്ട് അതിൻ്റെ വർക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ നോക്കിയിട്ടു ചിലപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഇനി ഇപ്പോൾ കോൺട്രാക്റ്റർന്മാര് അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ വന്നാൽമതി നമ്മൾ എത്തിച്ചു തരാം വന്ന് ഡിസൈൻ ഒക്കെ നോക്കിയിട്ട് മതി മതി ഓക്കെ ആ ഓക്കെ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് പറഞ്ഞുതന്നാൽ ഞാൻ അത് അവിടെ അഡ്രസ്സ് ഒന്ന് എഴുതിക്കൊടുത്താൽ മതി നമ്മൾ വണ്ടിയിൽ അവിടേക്ക് എത്തിച്ചു തരാട്ടോ ഓക്കെ ഓക്കെ ശരി ശരി